വീട്ടിൽ നമ്മൾ പാചകം ചെയ്യുമ്പം കൂടുതലായിട്ടും നമ്മൾ ഗ്യാസൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പം നമ്മൾ മെയിനായിട്ട് ഗ്യാസ് യൂസ് ചെയ്യുമ്പം നമ്മൾ നല്ലൊരു വയറും കാര്യങ്ങളൊക്കെ ആണോയെന്ന് വയറെന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ഓസ് ആ കാര്യങ്ങളൊക്കെ നല്ലതാണോ നമ്മൾ എപ്പോഴും പരിശോധിക്കണം ഇപ്പം ഒരു പാറ്റ വന്നിട്ട് കടിച്ചാൽ തന്നെ അതിന് ഓട്ടയും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാൻ പറ്റില്ല ഇത് ലീക്കാണോ എന്നൊക്കെ ലീക്ക് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുക്കളയിലൊക്കെ സംഭവിക്കാൻ പറ്റും അപ്പം നമ്മളൊരു ഒന്നോ രണ്ടോ വർഷം യൂസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ അത് ഇരുന്ന് ദ്രവിച്ചു പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ മാറ്റുക പിന്നെ അതിൻ്റെ ഒരു നമ്മൾ കണക്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് അതും നമ്മൾ കറക്റ്റ് ആയിട്ട് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതിനകത്തു കൂടി ലീക്ക് വരാനൊക്കെ സാധ്യതകൾ ഒക്കെയുണ്ട് അതൊക്കെ നമുക്ക് ഗ്യാസിൻ്റെ ഓഫീസിൽ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീയായിട്ട് മാറ്റി തരും അങ്ങനത്തെ ഇതൊക്കെ ചെയ്തു തരും നമ്മളാ പഴയ സാധനം അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുതിയത് തരും അതൊക്കെ നമ്മുടെ മെയിനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കുന്നതിൻ്റെ അവിടെ ലീക്കും കാര്യങ്ങളും വരുന്നുണ്ടോ എന്ന് നോക്കുക നമ്മൾ എപ്പോഴും ഓണാക്കി വെക്കാണ്ട് നമ്മളെന്തെയ്യാ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഓഫാക്കി വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു മുൻകരുതലും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിസാധിക്കും